ഏഴുലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റിപ്പത്ത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് ആറ് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്